ഹലോ കൂത്തുപറമ്പുള്ള രമണിയേച്ചി അല്ലേ ആ എനിക്ക് ഞാൻ ഇവിടെ നിന്ന് തലശ്ശേരിയിൽ നിന്ന് ആണേ വിളിക്കുന്നത് എനിക്ക് കുറച്ച് ഒരു അമ്പത് തേങ്ങയുടെ ആവശ്യം ഉണ്ടായിരുന്നു കല്ല്യാണ ആവശ്യമായിരുന്നു ഒരു ശനിയാഴ്ച ആണ് കല്ല്യാണം വെള്ളിയാഴ്ച വൈകിട്ട് ആവുമ്പോഴത്തേക്കും കിട്ടിയാൽമതി അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പൈസ എല്ലാം അതെയല്ലേ അപ്പോൾ ഇത് എങ്ങനെയാണ് ഞാൻ അവിടെ വന്നിട്ട് എടുക്കണോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ കൊണ്ടുത്തരുമോ ആ എനിക്ക് തേങ്ങ മാത്രം പോര അതിൻ്റെ ചകിരിയും ആവശ്യുണ്ട് ആ പിന്നെ ആ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയും അവിടെ നിന്ന് കിട്ടും കേട്ടത് അപ്പോൾ അതും കൂടി ആവശ്യം ഉണ്ടായിരുന്നു ഒരു രണ്ടു ലീറ്ററോളം വേണം

ആ ആ അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടുള്ള പൈസ എങ്ങനെയാണ് വീട്ടിലേക്ക് കൊണ്ടു വന്നതിനു ശേഷം അവിടെ നിന്ന് തന്നാൽമതിയോ അല്ലെങ്കിൽ ഞാൻ അങ്ങോട് വരണോ ഓ അതെയോ ഞാൻ എൻ്റെ എന്താ എൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഈ ഒരു സ്ഥലം അറിഞ്ഞത് അപ്പം നല്ല സ്ഥലം നല്ല വിശ്വാസത്തോടെ എല്ലാം തരുന്നതാണെന്നു അറിഞ്ഞതുകൊണ്ടാണ് എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് എടുക്കാം നിങ്ങൾക്ക് അത് ഒരു ബുദ്ധിമുട്ട് ആവണ്ടല്ലോ ഇത് ഇത് എവിടെയാണ് സ്ഥലം

അതേ അല്ലേ ആ എന്നാൽ ഞാൻ ഇന്ന് വൈകിട്ട് അങ്ങോട്ടേക്ക് വരാൻ നോക്കാം ഇന്ന് വൈകിട്ട് നിങ്ങൾ ഉണ്ടാകുമോ ഇവിടെ ആ അങ്ങനെ ആണെങ്കിൽ ഞാൻ തേങ്ങേൻ്റേയും അതിൻ്റെ എല്ലാം അവശ്യത്തിൻ്റെ പൈസ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് തരാം ആ എന്നാൽ ഞാൻ ഇറങ്ങുമ്പം വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങുമ്പം വിളിക്കാം ആ ശരി എന്നാൽ